ഇപ്പം കാലം കുറെ മുന്നോട്ട് പുരോഗമന ചിന്താഗതികൾ വന്നല്ലോ അപ്പം പിന്നെ ഏത് ഗ്രാമത്തിലും ദരിദ്രർക്കും അതായത് ഗവണ്മെൻ്റെ അഞ്ച് രൂപ നിരക്കില് ചികിത്സിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എത്താത്ത സ്ഥലങ്ങളില് മാസത്തിലൊരിക്കലെങ്കിലും മെഡിക്കൽ കാമ്പും ക്യാമ്പുപോലുള്ള ഇതൊക്കെ വച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെൻ്റെ ചെയ്യാനും പ്രായമായവർക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉള്ളവർക്കൊരു ബുക്കൊക്കെ കൊടുത്ത് അവരേയും ട്രീറ്റ് ചെയ്യാനും അവർക്ക് ഫ്രീ ആയി മരുന്ന് കൊടുക്കാനുമൊക്കെ ഗവണ്മെൻ്റെ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ദരിദ്രരാണ് ഗ്രാമപ്രദേശമാണ് അവർക്ക് ചിത്സാരീതി കിട്ടായ്ക ഒന്നുമില്ല എല്ലായിടത്തും ഗവണ്മെൻ്റെ പിന്നെ ഗണ്മെൻ്റെ ഹോസ്പിറ്റൽ വച്ചിട്ട് അത് വ വലിയ പൈസകളൊന്നുമില്ല തുച്ഛമായ പൈസയ്ക്കുള്ളിൽ അവർക്ക് ചികിത്സിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതൊരു നല്ല ഏർപ്പാടാണ് എല്ലാവരിലേക്കും ചികിത്സ എത്തുന്നുണ്ട് പൈസ ഇല്ല അതുകൊണ്ടെനിക്ക് മരുന്ന് വാങ്ങാൻ പറ്റില്ല എന്നുള്ള വരാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് ചികിത്സിക്കാൻ അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പ് നടത്താനും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് സംവിധാനങ്ങളുണ്ട് അപ്പം പിന്നെ കൂടുതൽ ലഭ്യ ഈ ക്യാമ്പ് പോലെ നടക്കുന്നത് ഒരു ആഴ്ച്ചയില് ഒരു മെഡിക്കൽ പിന്നെ മെഡിക്കൽ ടീം വന്ന് പരിശോധിച്ച് പോകുവാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്പാണ് പിന്നെ പോകാൻ തീരെ പറ്റാത്തവര് ഈ ആശാവർക്കറും പിന്നെ അംഗൻവാടി ടീച്ചേഴ്സും മുൻപിലോട്ട് കൊണ്ട് വന്ന് അവർക്ക് വേണ്ട നിർദേശം കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്